എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോട്ടലിൽ പ്രത്യേകിച്ച് ഉള്ളത് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ് കോക്ക് ജ്യൂസ് ബട്ടർ എന്നിവയുണ്ടോ മാങ്ങ ഓറഞ്ച് ആപ്പിൾ അങ്ങനത്തേത് ഉണ്ടോ ജ്യൂസ് ആണോ അതോ ഷെയ്ക്ക് ഐറ്റംസ് ആണോ കൂടുതൽ ഉള്ളത് ഏതാണ് ഇവിടെ കൂടുതലും പ്രധാനം ആയിട്ടുള്ളത് കോക്ക് ജ്യൂസ് ബട്ടർ എന്നിവയാണ് എനിക്ക് ഇവിടെനിന്നും ഓർഡർ ചെയ്യാൻ താൽപ്പര്യം ഉള്ളവ എങ്ങനെ നിങ്ങൾ നല്ല വൃത്തിയിലാണോ ഉണ്ടാക്കാറുള്ളത് എനിക്ക് വൃത്തിയുളള സാധനം വേണം ഈച്ച കൊതുക് പാറ്റ എന്നിവ ഇരുന്ന ഭക്ഷണങ്ങളൊന്നും കൊണ്ടുവരരുത് നല്ല വൃത്തിയോട് കൂടി നല്ല കൈകൾ ഒക്കെ വൃത്തിയായിട്ട് വേണം ചെയ്യാൻ അപ്പോൾ എനിക്ക് കോക്ക് ജ്യൂസ് ബട്ടർ മുതലായവ ആണ് ഞാൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് അവ വൃത്തിയായി നല്ല കഴുകി പാത്രങ്ങളോടുകൂടി വൃത്തിയായി കൊണ്ടുവരിക എൻ്റെ സുഹൃത്തുക്കൾക്കും ഓരോന്ന് വീതം കൊണ്ടുവരുക